ഇപ്പോൾ മൃഗസംരക്ഷണത്തിനായിട്ടു നമ്മള് കൂടുതലായിട്ടും എന്തൊക്കെ തീറ്റി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല് നമ്മൾ കൂടുതലായിട്ടും ആ നമ്മള് അതായതു നമുക്ക് നമ്മുടെ സൊസൈറ്റീന്നു തന്നേ കിട്ടുന്ന പല രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കേ അവർക്കു അതായതു പശുക്കൾക്കാണെങ്കിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ അതിനു കൂടുതലായിട്ടും നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കേയെന്നു പറഞ്ഞിട്ടുള്ളൊരു കാലിത്തീറ്റയാണ് നമ്മള് കൂടുതലായിട്ടും കൊടുക്കുന്നത് അവരുടെ തന്നേ പല രീതിയിലുള്ള കാലിത്തീറ്റകളും കാര്യങ്ങളൊക്കെ നമ്മള് കൊടുക്കാറുണ്ട് കാരണമെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇപ്പോൾ കെ എസ് മിൽമ അങ്ങനത്തെ പല രീതിയിലുള്ള അവരുടെ ഓരോ ഓരോ ആൾക്കാരും ഓരോ പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവരുടെ ഇതായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കേ നമ്മള് കൊടുക്കാറുണ്ട് പിന്നേ ചോളപ്പൊടി അങ്ങനത്തെ പലരീതിയിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കേ നമ്മള് നമ്മടെയായുള്ള അതായത് നമ്മുടെ പശുവിന് കൊടുക്കാനുണ്ട് പിന്നേ പിന്നേ ചോളമെന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ചോളപ്പൊടി മാത്രമല്ല പിന്നേ നമ്മുടെ കർണാടകയിൽ നിന്ന് വരുന്ന ചോളപ്പുല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കേ നമ്മള് കൊടുക്കാറുണ്ട് കാരണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സമയങ്ങളിലൊന്നും നമുക്ക് പുല്ലും കാര്യങ്ങളൊന്നും ലഭ്യമാകില്ല കാരണം നല്ല വെയിലുള്ള സമയങ്ങളിലൊന്നും പുല്ല് ഉണ്ടാവില്ല അപ്പം ആ അപ്പോൾ നമ്മൾ പുറത്ത് നിന്നാണ് കൂടുതലായിട്ടും കൊണ്ടുവരുന്നത് അപ്പോൾ ഇല്ലെങ്കില് അഥവാ നല്ല വെയിലുള്ള സമയങ്ങളിലാണെങ്കിൽ നമ്മള് ഉണക്ക പുല്ലും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം